പണ്ടത്തെ മൊബൈലുകളും ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണുകളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് പണ്ട് പറയുമ്പോൾ ആ നമുക്ക് മൊബൈലുകൾ അധികം യൂസ് ഇല്ല അങ്ങനെ ആരും യൂസ് ചെയ്യാറില്ല കോൾ ചെയ്യാൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ ഈ നെറ്റ് കണക്ഷൻ ഒന്നും ആവിശ്യം ആർക്കും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പിന്നെ ടെക്നോളജി വളർന്നത് മൂലം ഇപ്പോൾ എല്ലാരും സ്മാർട്ട് ഫോണായി ഇപ്പോൾ എല്ലാരുടെ കയ്യിലും സ്മാർട്ട് ഫോണുണ്ടാവും അത് ഇപ്പോൾ നമുക്ക് ലൊക്കേഷൻ നോക്കാനും ഇപ്പോൾ ഡെവലപ്പ്മെൻറ് ഇപ്പോൾ നെറ്റ്വർക്കും എല്ലാം നല്ല ഡെവലപ്പ് ആയതുകൊണ്ട് പുതിയ പുതിയ ടെക്നോളോജീസും അതിനെക്കുറിച്ചുള്ള നോളജും എല്ലാം കിട്ടാൻ വേണ്ടി ഇപ്പോൾ എല്ലാരും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ സ്മാർട്ട് ഫോണിൽ തന്നെ കുറേ ബ്രാൻഡുകൾ ഇറങ്ങുന്നുണ്ട് പിന്നെ നെറ്റ്വർക്ക് അതും കുറേ ഇതുണ്ട് ഇപ്പോൾ നമ്മുടെ കേരള സർക്കാരിൻ്റെ ബി എസ് എൻ എൽ പിന്നെ ജിയോ അങ്ങനെയുള്ള കുറേ പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഒക്കെ നമുക്ക് നല്ല നെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് സിം ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സിമ്മെന്ന് വെച്ചാൽ ബി എസ് എൻ എൽ ആണ് അപ്പോൾ അതിൽ നമുക്ക് ഡാറ്റ കയറ്റുന്ന എസ് ടി വി നൂറ്റി അൻപത്തേഴ് രണ്ട് ജി ബി പെർ ഡേ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഇപ്പോൾ നെറ്റിൻ്റെ ആവിശ്യം കൂടുതലാണ് അപ്പോൾ അപ്പോൾ വൈഫൈ ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ സ്മാർട്ട് ഫോൺ നല്ല യൂസും തന്നെയാണ് നമുക്കെല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും ആരോടും ചോദിച്ച് പാഴാക്കേണ്ട ആവശ്യമില്ല നമുക്കെല്ലാം നമ്മുടെ കൈവിരലിലുണ്ടാവും

നെറ്റിനും ഇപ്പോൾ ഓരോ സിമ്മിനും ഓരോ റേറ്റ് ആണ് നെറ്റ്വർക്കിൻ്റെ ഡാറ്റ പ്ലാൻ അപ്പോൾ മാസം ഒരു ഇരുന്നൂറ് മുന്നൂറ് രൂപ നമുക്ക് ചിലവ് വരും ഈ റീച്ചാർജ് ചെയ്യാനും പക്ഷെ അതൊക്കെ ആവശ്യങ്ങൾക്കാണ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാലും പഴയ സ്മാർട്ട് ഫോണുകൾ നല്ല ഗുണമുള്ളതാണ്